ഹാലോ മലബാർ ഹോട്ടലല്ലേ ആ ഞാൻ രാജീവ് കോട്ടായീന്നു വിളിക്കുകയാണ് ഒരു റിട്ടയർമെൻ്റ് ഫങ്ഷൻ ഉണ്ട് അടുത്ത മാസം ഇരുപത്തിയൊന്നിന് അപ്പോൾ അന്നത്തേക്കുള്ള ഫുഡ് ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് ആ എന്തൊക്കെയാണ് അവിടെ മെയിൻ ഫുഡ് ഐറ്റംസ് ഉള്ളത് ആ നമ്മളൊരു അഞ്ചേ ടു ഏഴ് ആ ടൈമിലാണ് പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ഫുഡ് ഐറ്റംസ് ഉള്ളത് നമ്മളുദ്ദേശിക്കുന്നത് പത്തിരിയും ബീഫും മതിയെന്നാണ് അപ്പോൾ ബീഫിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഐറ്റംസ് ഉള്ളത് നമുക്ക് ബീഫ് കറി മതി ബീഫ് കറിയും കുരുമുളകിട്ടുള്ളൊരു കറി മതി

പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എങ്ങനെ ഉണ്ട് നമ്മളൊരു നൂറു പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നൂറ്റിമുപ്പത് പേർക്കൊക്കെ കഴിക്കാൻ കാണില്ലെ ആ റേഞ്ചിലുണ്ടാവില്ലേ കറി തികയില്ലേ ഓക്കേ ആ കുറച്ചൊക്കെ കുട്ടികളായിരിക്കും അവരൊക്കെ കുറച്ചല്ലേ കഴിക്കൂ ആ പിന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് പത്തിരിയുടെയൊക്കെ ആ പത്തിരിക്ക് ഒരെണ്ണം എട്ട് രൂപയൊക്കെ എടുത്താൽപ്പോരേ പത്ത് രൂപ കുറച്ച് കൂടുതലല്ലേ ആ പിന്നെ മസാലയുടെ കാര്യം മറക്കല്ലേ നമ്മുടെ പെപ്പർ കറിയാണ് നമുക്ക് വേണ്ടത് കുരുമുളക് കറി ഉപ്പൊക്കെ കുറച്ച് മതി ആ പിന്നെ ഫുഡ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു തരില്ലേ അതോ കടയിൽവന്നെടുക്കണോ ആ ഇവിടെ കൊണ്ടു വന്നു തരില്ലേ ഓക്കേ പേയ്മെൻ്റ് ഒരുമിച്ച് ചെയ് അന്ന് മതിയോ അഡ്വാൻസായിട്ടൊന്നും വേണ്ടല്ലോ അല്ലേ ഓക്കേ ആ അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് പത്തിരിയും അതിൻ്റെ കറിയുമാണ് വേണ്ടത് ബീഫ് കറി ഒരു നൂറു പേർക്ക് ഒരു ഇരുന്നൂറ്റമ്പത് പത്തിരി മതിയാവില്ലേ ആ ചെറിയൊരു ഫങ്ഷനാണ് ആ ഒരു നൂറു പേർക്ക് ഒരിരുന്നൂറ്റൻപത് പത്തിരിയും അതിൻ്റെ കറിയും ബീഫ് കറി ആ അത്രയും മതി ഓക്കേ അപ്പോൾ ഡേറ്റ് മറക്കല്ലേ ഇരുപത്തിയൊന്ന് അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് ഫങ്ഷൻ ഫങ്ഷൻ സമയം അഞ്ചേ ടു ഏഴ് തന്നെയാണ് മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങളൊരു നാലര ആകുമ്പോഴേക്കും ഫുഡ് ഇവിടെ എത്തിക്കില്ലേ ആ ഓക്കേ ആ ശരി